സ്റ്റാമ്പുകൾ നാണയങ്ങൾ കല്ലുകൾ എന്നിവ ശേഖരിക്കുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളികൾ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടോയെന്നുള്ളതാണ് ചോദ്യം എൻ്റെ അനുഭവത്തിൽ സ്റ്റാമ്പുകൾ ഇതേപോലെ രാജ്യത്തിൻ്റെ സ്റ്റാമ്പുകളുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റാമ്പുകളുണ്ട് സ്റ്റാമ്പുകൾ നിർമ്മിക്കുന്നത് രാഷ്ട്രത്തലവന്മാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും രാജ്യത്തിന് വേണ്ടി പടപൊരുതിയ ധീരയോദ്ധാക്കളുടെയുമെല്ലാം ചിത്രം പതിച്ചതാണ് സ്റ്റാമ്പുകൾ അതോടൊപ്പം തന്നെ വിശുദ്ധരായിട്ടുള്ള ആളുകളെ മറ്റ് സമുദായ നേതാക്കന്മാരുടെയെല്ലാം ഫോട്ടോ ആലേഖനം ചെയ്തതാണ് സ്റ്റാമ്പുകൾ അത് നമുക്ക് നമ്മുടെ ഇന്ത്യാരാജ്യത്ത് അച്ചടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രമുഖര് രാഷ്ട്രീയ പ്രമുഖര് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളില് പ്രവർത്തിക്കുന്ന നേതാക്കന്മാര് മത നേതാക്കന്മാര് വിശുദ്ധരായിട്ടുള്ള ആളുകള് വിശുദ്ധരായിട്ടുള്ള ആളുകളെയെല്ലാം എല്ലാമാണ് നമ്മുടെ സ്റ്റാമ്പുകളിൽ പതിപ്പിച്ചിട്ടുള്ളത് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കത്തുകളിൽ നിന്നെല്ലാം നമുക്ക് വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ നമ്മുടെ ഇന്ത്യയിലും തന്നെ പ്രകൃതിയുമായിട്ട് ചേർന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള സ്റ്റാമ്പുകളാണ് പ്രകൃതിയുടെ മനോഹാരിതയൊക്കെ വിളിച്ചോതുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ ആവിഷ്കരിച്ചിട്ടുള്ള സ്റ്റാമ്പുകളാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്തുനിന്നും ഇറക്കിയിട്ടുള്ള തപാൽ സ്റ്റാമ്പുകൾ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുവരുന്ന അവിടുത്തെ അവിടുത്തെ പ്രഗല്ഭരായിട്ടുള്ള ആളുകളുടെയുമൊക്കെ ചിത്രങ്ങളാണ് അലേഖനം ചെയ്ത് അവിടെയും ഇതുപോലെ തന്നെയാണ് അവിടുത്തെ പ്രകൃതിയും അവിടുത്തെ ബൃഹത്തായ സംരംഭങ്ങളുമെല്ലാം ചിത്രീകരിക്കുന്ന ചിത്രങ്ങളോടുകൂടി ആലേഖനം ചെയ്ത സ്റ്റാമ്പുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നാണയങ്ങൾ പണ്ടുകാലത്ത് ചക്രം അണ നാണയങ്ങൾ തുട്ടുകൾ എന്ന രീതിയിലായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെയുണ്ടായിരുന്നത് ചക്രങ്ങൾ നാണയങ്ങൾ ചക്രങ്ങൾ ചക്രങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നാണയങ്ങളുണ്ടായത് നാണയങ്ങൾ ചക്രങ്ങൾ ഒരണ രണ്ടണ അരയണ മുക്കാലണ എന്നൊക്കെ പറഞ്ഞായിരുന്നു അന്നത്തെ ചക്രങ്ങളുടെ മൂല്യം നിര്ണയിച്ചിരുന്നത് ഇപ്പോൾ അതിനുശേഷം നാണയങ്ങൾ വന്നു നാണയങ്ങൾ ഒരു പൈസ രണ്ട് പൈസ മൂന്ന് പൈസ അഞ്ച് പൈസ പത്ത് പൈസ ഇരുപത് പൈസ എന്നിവയെല്ലാം അലുമിനിയം കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് ഇപ്പോൾ അതിനുശേഷം ഇരുപത്തിയഞ്ച് പൈസ അമ്പത് പൈസയൊക്കെ മറ്റ് ലോഹങ്ങൾ കൊണ്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു പൈസ മുതല് ഇരുപത്തിയഞ്ച് പൈസ വരെയുള്ളതിന് നമ്മുടെ രാജ്യത്ത് മൂല്യമില്ലാതായിരിക്കുന്നു അമ്പത് പൈസയുടെ മൂല്യം കുറഞ്ഞിരിക്കുന്നു ഇവിടെ ഉപയോഗിക്കാൻ കൊള്ളാത്ത രീതിയില് ഇരുപത്തിയഞ്ച് പൈസ വരെ മാറിയിരിക്കുകയാണ് അമ്പത് പൈസയുടെ ഉപയോഗം കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ നിലവിലുള്ളത് ഒരു പൈസ മുതല് ഒരു രൂപ മുതല് രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ നൂറ് രൂപ ആയിരം രൂപയുടെ വരെയും നാണയങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തിന്ന് റിസർവ് ബാങ്ക് ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കല്ലുകൾ കല്ലുകൾ നമ്മള് ശേഖരിക്കുമ്പോൾ നല്ല ഒഴുക്കുള്ള സമുദ്രത്തിൽ നിന്നോ തോടുകളിൽ നിന്നോ വെള്ളമൊഴുകുന്ന മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ ശേഖരിക്കുമ്പോൾ വളരെ ആകർഷകമായിട്ടുള്ള വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപഭേദങ്ങളോടുകൂടിയ കല്ലുകൾ നമുക്ക് ശേഖരിക്കാൻ സാധിക്കും വളരെ ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി ഒഴുകി വന്ന് മറ്റ് പാറക്കല്ലുകളില് തട്ടി ഒഴുകി വരുമ്പോൾ അത് അതിന് ഷേപ്പ് വന്ന് നല്ല രുപാന്തരപ്പെട്ട് നല്ല ഷേപ്പിൽ നമുക്ക് ലഭിക്കും അത് നമ്മള് സൂക്ഷിക്കാറുണ്ട് കല്ലുകൾ എന്നിട്ട് അത് കല്ലുകൾ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആ മനോഹരമായ കല്ലുകളെ വിവിധ നിറങ്ങൾ കൊടുത്ത് ഛായങ്ങൾ പൂശി നമ്മുടെ അലങ്കാരത്തിനായി വീടുകളിലും വീടുകളുടെ ഷോക്കേസുകളിലുമെല്ലാം സൂക്ഷിക്കുന്ന പതിവ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണെന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്